കോളേജ് ഡിഗ്രി ഉള്ളവരെ കുറച്ചു കുറേയൊക്ക പരിചയമുണ്ട് പക്ഷേ ആ അതിനേക്കാളും എന്താണ് എല്ലാവരും എല്ലാം നേടിയെന്ന് പറയാനായിട്ട് പറ്റില്ല ഇപ്പം ഡിഗ്രി നമ്മുടെ കോളേജ് ലൈഫ് ഒരു ആസ്വദിക്കാനുള്ള ഒരു നല്ല ഒരു ഘടകം തന്നെയാണ് പക്ഷെ അത് കൂടാതെ ഇപ്പം പുറത്തേക്കൊക്കെ പോകണമെങ്കിലും ഒക്കെ എല്ലാ ജോലികൾക്കും എല്ലാ കാര്യത്തിനും ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് തന്നെ വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് ആ അതിനെ കുറച്ചും കൂടെ എന്താണ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് മെയിനായിട്ട് നമുക്ക് വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് അത് ഇമ്പോട്ടൻ്റ് ആണ് പിന്നെ വേറെ ഒരു കാര്യം ഈ കോളേജ് ഡിഗ്രി ഉള്ളവർക്ക് എല്ലാം നേടി എന്നു മസ്റ്റ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റില്ല എല്ലാം നേടിയിട്ടില്ല അവർ കുറേ കാര്യങ്ങളും കൂടെ പഠിക്കാനുണ്ട് പിന്നെ അതിലേക്ക് മുന്നേറാനുള്ള നമ്മുടെ ഒരു ലക്ഷ്യം പോലെ നമ്മൾ കരുതണം എന്ന് മാത്രമുള്ളു പക്ഷേ അതിനെ ഒന്ന് ഒരു സ്വാർത്ഥത ആയിട്ട് കാണരുത് പിന്നേ കുറച്ചു കൂടെ ഇമ്പോട്ടൻസ് കൊടുത്താലും ഡിഗ്രി പഠനത്തിന് പക്ഷെ എന്നാൽ ഇമ്പോട്ടൻസ് കൊടുത്താലും എന്താണ് കൂടുതലും അവർ എല്ലാം നേടി എന്നു ഉറപ്പിച്ചു പറയരുത് പിന്നെ മുന്നേറി എന്നു തോന്നുന്നുണ്ടോ എന്നു ചോദിച്ചാൽ പിന്നെ ഒരുപാട് കാര്യങ്ങളിലൊക്കെ തോന്നുന്നു അപൂർവമായിട്ട് തോന്നാതിരിക്കുകയുള്ളു കാരണം ഇപ്പം നമ്മൾക്ക് അറിയാം ഏത് ജോലിക്ക് എവിടെ പോയാലും എന്തു ചെയ്യേണ്ടി വന്നാൽ തന്നെയും ഡിഗ്രി എന്നു പറയുന്നത് പ്ലസ് ടു കഴിഞ്ഞിട്ട് വരുന്ന ഒരു ബേസ് ആണ് അപ്പം അതുകൊണ്ട് ആ ബേസ് കണ്ടിന്യൂ ചെയ്യുക അതിനെ മുന്നോട്ട് കൊണ്ട് പോവുക അത് ഇമ്പോട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പിന്നെ കൂടുതൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം പിന്നെ കോളേജിനെ സംബന്ധിച്ചിടത്തോളം കോളേജ് ലൈഫ് അത് ഡിഗ്രി പി ജി ഒക്ക കണ്ടിന്യൂ ചെയ്താൽ അത് വളരെ ഇമ്പോട്ടൻ്റ് ആണ് പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് അറിയാം ഇപ്പം പല പല സാഹചര്യങ്ങൾ ഒക്കെ വളർന്നു വരുന്നു ഇപ്പം എല്ലായിടത്തും കോളേജ് കോളേജ് അവൈലബ്ൾ അല്ല പല പല സ്ഥലങ്ങളിലും അപൂർവ സ്ഥലങ്ങളിൽ മാത്രമേ കോളേജ് അവൈലബ്ൾ ആയിട്ടുള്ളൂ അപ്പം നമ്മൾ ഈ അവൈലബിൾ ആയിട്ട് കിട്ടുന്ന സന്ദർഭങ്ങളെ ഒന്നും കളയാതെ നഷ്ടപ്പെടുത്താതെ അതിനെ മുന്നോട്ട് ആ ഫോക്കസ് ചെയ്തു കൊണ്ട് കയറി വരിക കയറി വരും അതാണ് മെയിനായിട്ടും ചെയ്യേണ്ടത്